ആ എന്താ ഏട്ടാ ഒത്തിരി വലിയ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ആണ്

ചെണ്ടുമല്ലിപ്പൂ എന്ത് വില നൂറ്റമ്പത് അതെ ശരി അത് കുറച്ച് ഇത് നമ്മള് ഇവിടുന്ന് ഞാന് കൊണ്ട് പോയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അത് വാടുവോ അതോ വെള്ളം തിളച്ച് വെച്ചാൽ മതി ആ വീട്ടിൽ കൊണ്ടുപോയി വരുമ്പോഴേക്ക് ഒക്കെ മേ മരുന്ന് അടിച്ചത് ഒന്നും അല്ലല്ലോ മ് ഇവിടുന്ന് അവിടെ കൊണ്ട് പോകുമ്പോഴേക്ക് ഇനി വാടി കഴിഞ്ഞാൽ അവര് ഞങ്ങള് വലിയ ഒര് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ആണേൽ കുടുംബശ്രീ പരിപാടികൾ കുടുംബശ്രീയുടെ ആൾക്കാര് ആണ് ഇപ്പം വലിയ ഒര് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ആണ് ചോദിക്കുന്നത് അപ്പം എനിക്ക് കുറച്ച് പോരാ ഒര് ജാസ്തി ആണോ ഇത് എന്ത് പൂവാ ഇത് ചെണ്ടുമല്ലി അത് ചെമ്പകോ അരളി പൂവാ ഓ അപ്പം അതും എനിക്ക് ഒര് മൂന്ന് കിലോ എടുത്തോളൂ മൂന്ന് കിലോ ചെണ്ടുമല്ലി ഫുള്ള് എടുക്കുമോ പിന്നെ ഇത് എന്താ ചെമ്പകമോ ചെമ്പക പൂവോ അതെ പിന്നെ ഓ ജമന്തി പൂവ് ജമന്തി പൂവ് അല്ലേ അതെ അപ്പം ആ ഇത് വാടാമല്ലി ഇത് വാടുവോ വീട് എത്തുമ്പഴേക്കും കേട് ഒന്നും വരില്ലല്ലോ ഏത് സമയവും വാങ്ങിക്കാല്ലോ അല്ലേ ആ അപ്പം എന്നാ ഒര് ചെണ്ടുമല്ലിപ്പൂ കുറച്ച് എടുക്കൂ ഒര് മൂന്ന് കിലോ എടുക്കൂ മ് പിന്നെ മ് മ് പിന്നെ തെച്ചിപ്പൂവ് തെച്ചിപ്പൂവ് എന്ത് വില മാക്സിമം ഇരുന്നൂറ്റമ്പത് അത് ഒര് ഒരു ഒന്നര കിലോ മതി

താമര ആ താമര ആ കുഴപ്പമല്ല അതും കുറച്ച് എടുത്തോളൂ അമ്പത് എത്രയാ എത്ര എണ്ണം ഒര് എണ്ണത്തിന് അമ്പത് രൂപേ ആ അപ്പം നാല് സൈഡിലും വെക്കാൻ വേണ്ടി നാല് എണ്ണം എടുക്കാലോ അല്ലേ അപ്പം അത് നന്നായി ഇരിക്കും അല്ലോ അല്ലേ പൂക്കളം ഇട്ടതിൻ്റെ സൈഡില് നാല് സൈഡില് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒര് നാലും മ് അത് ഒര് നാല് എണ്ണം എടുത്തോളൂ വെള്ള വേണ്ട റോസ് മതി ഇതാ ഈ മഞ്ഞ ചെണ്ടുമല്ലിയും കുറച്ച് എടുക്കൂ ആ അത് അത് ഒര് രണ്ട് കിലോ എടുത്തോളൂ കാരണം എന്നാൽ എന്നാൽ അല്ലേ തികയുള്ളു

വാടാമല്ലി ഒരു ഒന്നര കിലോ മതി മ് അത് ഒര് ഒന്നര കിലോ എടുത്തോളൂ നിങ്ങൾ അല്ല ഞാൻ അപ്പം തന്നെ കൊണ്ട് പോകുവാണ് വീട്ടിൽ കൊണ്ട് പോയി വെച്ചാൽ വാടില്ലാന്ന് പറഞ്ഞത് നിങ്ങൾ അത്രയും ഉറപ്പ് പറഞ്ഞത് കൊണ്ട് ആണ് ഞാൻ വാങ്ങിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവര് എല്ലാവരും കൂടി എന്നെ ചീത്ത പറയാൻ പാടില്ല അതും കൂടി പതിനഞ്ച് ആണോ ശരി ആ ആ ശരി എടുത്തോളൂ